നമ്മുടെ കേരളത്തില് മലയാളം ഭാഷ അത് വളരെ മനോഹരമായ ഒരു ഭാഷയാണ് നമുക്ക് ഇഷ്ടംപോലെ മലയാളത്തില് കവികളുണ്ട് അവര് അവര്ടെ സമ്പാവനകളക്കെ കൊടുത്തിട്ടുള്ളതാണ് നാം അത് വായിച്ചിട്ടുള്ളതുമാണ് ഇഷ്ടംപോലെ കവികളുണ്ട് പിന്നെ കഥകളി അത് മലയാള നമ്മുടെ കേരളത്തിന്റെ ഒരു ഒരു ഏറ്റവും നല്ല ഒരു കലാ കലാപരമായ ഒരു ആട്ടമാണ് കഥകളി മോഹിനിയാട്ടം നമ്മുടെ മലയാളത്തില് ഇഷ്ടംപോലെ കവികളും പിന്നെ കലാകാരന്മാരും ഇഷ്ടംപോലെ ഇതൊക്കെയുള്ള കലാപരമായിട്ട് ഒക്കെയുള്ള ആള്ക്കാർ വാസനയുള്ളവരാണ് അവർ മലയാളഭാഷക്ക് ഇഷ്ടംപോലെ സംഭാവനകള് ചെയ്തിട്ടുണ്ട് നാം പഠിക്കുമ്പോള് നമുക്ക് നമ്മുടെ പുസ്തകങ്ങളില് നിന്നൊക്കെ നമുക്കത് ഒരുപാട് കാര്യങ്ങള് അറിയാനും ഒക്കെ ഇവർ ഈ കവി കവികളിലൂടെ ഒക്കെയാണ് നാം കൂടുതല് മലയാള ഭാഷയെ സ്നേഹിച്ചതും അതിനെപ്പറ്റി അറിയാനുമൊക്കെ സാധിച്ചത് ഈ കേരളം എന്ന മനോഹരമായ സ്ഥലം സലത്തിനെക്കുറിച്ചും അതിന്റെ പച്ചപ്പിനെക്കുറിച്ചും ഒക്കെ നമ്മുടെ സംസാര രീതിയും നമ്മുടെ മലയാളം എന്ന ഭാഷയും വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് അത് നമ്മുടെ സംസ്കാരിക പൈതൃകത്തെ സംരഷിക്കുന്നതിനും നമ്മുടെ മലയാള ഭാഷ ഒരുപാട് നാം സഹായിച്ചിട്ടുണ്ട് ഈ മലയാള ഭാഷയില്ത്തന്നെ നാടന് പാട്ടുകളുണ്ട് ഇത് ഇഷ്ടംപോലെ കഥകളുണ്ട് പാട്ടുകളുണ്ട് സിനിമകളുണ്ട് അതൊക്കെ കണ്ടും കേട്ടും വളര്ന്നവരാണ് ഓരോ മലയാളികളും ഇതൊക്കെ കാണുമ്പോഴാണ് നാം നമ്മുടെ മലയാളത്തിനെ ഏറ്റവും കൂടുതല് സ്നേഹിക്കുന്നതും അടുത്തറിയാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്